അതായതു ഓരോ മനുഷ്യരിലും ഓരോ വ്യക്തികളിലും സ്വാധീനം ചെലുത്താൻ പരസ്യത്തിന് വളരെ പരസ്യത്തിനു കഴിഞ്ഞിട്ടുണ്ട് അത് അവരുടെ വലിയ ഒരു മുന്നേറ്റട്ടോ അതായത് പിന്നെ ടീവി ടീവിയിൽ കാണുന്ന കുറേ പരസ്യങ്ങൾ ഉണ്ടല്ലോ നമുക്ക് ഗേൾസ് അമ്മ അമ്മമാരാണെങ്കിൽ അവരു കൂടുതൽ ശ്രദ്ധിക്കുക മിക്സി അതേപോലെ തന്നെ സാമ്പാർ പൊടി കിച്ചൻ ട്രെഷേർസ്ൻ്റെ സാമ്പാർ പൊടി പിന്നെ ചിക്കൻ മസാല അങ്ങനെയുള്ള സാധനങ്ങൾ ആണ് അപ്പം അവരിങ്ങനെ അത് ആ പിന്നെ പരസ്യം എങ്ങനെ ആണ് അവതരിപ്പിക്കുന്നേലും ഒരു മുഖ്യ പങ്കുണ്ട് ട്ടോ ആ പരസ്യ കമ്പനിക്ക് നല്ല നല്ല നടന്മാരെ വെച്ചു അവർക്ക് ഇഷ്ടമുള്ള നടന്മാരെ വെച്ചു അതിനൊത്തു വേണ്ട രീതിയിൽ ഒക്കെയാണ് അവരു ഓരോ പിന്നെ പരസ്യങ്ങൾ ഉണ്ടാക്കുക അപ്പം ഫുഡിൻ്റെ മസാല പൊടിൻ്റെ ആണെങ്കിൽ അത് എങ്ങനെയാന്നു വെച്ചു കാണിക്കുന്നു നല്ല നന്നായിട്ടു നല്ല ടേസ്റ്റ് ആണ് അത് വെച്ചാൽ അങ്ങനെ ആണ് പാലപ്പത്തിൻ്റെ റെസിപ്പി ആണെങ്കിൽ ഈസ്റ്റേൺൻ്റെ പാലപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ വെക്കുന്ന ഇതും അവരു ആ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് എങ്ങനെ ആൾക്കാരിൽ എത്തിക്കുന്നു എന്നുള്ളത് അതിൻ്റെ വലിയ ഒരു പങ്കാണ് ട്ടോ അതിൽ പിന്നെ അവരു നല്ല സെലിബ്രിറ്റിസിനെ വെച്ചൊക്കെ ആണ് ഇത് ചെയ്യുന്നത് എങ്കിലും വളരെ നല്ല സ്വാധീനം സാധാരണ മനുഷ്യരിൽ സാധാരണ വീട്ടമ്മയിൽ ചെലുത്താൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് ഒക്കെ അവരു തന്നെ വാങ്ങുന്നത് ആ പരസ്യം കണ്ടിട്ടാണ് ആ പരസ്യത്തിൽ അവൾ എങ്ങനെ ചെയ്തു അപ്പൊ നമുക്കും വാങ്ങി ഉപയോഗിക്കാലോ അങ്ങനെ ഒക്കെയാണ് സാധരണ വീട്ടമ്മമാരുടെ ഒക്കെ ചിന്താഗതി